ഇന്ത്യയിലെ ഗതാഗത സംവിധാനം ഒക്കെ നല്ലതാണ് പക്ഷെ റോഡ് ഒക്കെ കുണ്ടും കുഴിയും ഫുള്ളാണ് ഒരു വണ്ടി പോയിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കുന്ന എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നന്നാക്കാൻ തന്നെ ടൈം ഉണ്ടാവുള്ളു റോഡ് ഫുള്ളും വെള്ളം കെട്ടി നിന്ന് ഫുള്ളും ബ്ലോക്കാണ് അതേപോലെ റോഡ് പണി അത്ര നല്ലതൊന്നുമല്ല അതിൽ ആ റോഡ് സൈഡൊക്കെ വലിയ മരങ്ങളാണ് ഉള്ളത് എപ്പം വീഴും എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുക മരങ്ങളൊക്കെ പകുതി വച്ച് പൊട്ടിയിട്ടൊക്കെയാണ് നിൽക്കുന്നത് ആരുടെ മേത്താണ് വീഴുകയെന്നറിയില്ല അതേപോലെ ഗതാഗതങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ ഈ റോഡ് ഒന്ന് ആദ്യം നന്നാക്കിയെടുത്താൽ മാത്രമേ കുറച്ചും കൂടി ഇതാവുള്ളു അതേപോലെ റോഡ് സൈഡ് ഫുള്ളും വേസ്റ്റിന്റെ അഭിഷേകമാണ് നമുക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങി നടക്കാൻ വരെ മടിയാവും ഫുള്ള് അഴുക്ക് വെള്ളമാണ് ഫുള്ളും ഒലിച്ചുകൊണ്ട് ഇരിക്കുന്നത് നമുക്കൊരു പുതിയ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ വണ്ടീന്റെ അടി തട്ടി നാശകോശമാവും എന്താ വച്ചാൽ അമ്മാതിരി റോഡ് ആണ് ഇവിടെ ഉള്ളത് റോഡ് ഫുള്ളും നാശകോശമാണ് ബൈക്കും കൊണ്ടൊക്കെ ആൾക്കാർ ഇടയ്ക്കിടക്ക് കൂടുതൽ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബൈക്ക് ഒക്കെ ഇറങ്ങി തെന്നി വീണിട്ടൊക്കെ വല്ലാണ്ട് അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കല്ലിൽക്കൂടിയൊക്കെ ബൈക്കൊക്കെ കയറിപ്പോയിട്ട് ബൈക്കിൽ നിന്ന് ഒക്കെ ആൾക്കാർ വീഴലും അല്ലെങ്കിൽ കാർ ഇടിക്കലും വല്ലാത്ത പ്രശ്നം ആണ് റോഡ് കാരണം